അതെ ഇത് മൈജി മൊബൈൽ ഷോപ്പ് ആണ് ആരാണ് സംസാരിക്കുന്നത് യാ ആണോ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഫോണ് ആണ് വേണ്ടത് ഐക്യു ആ അത് ഇവിടെ സ്റ്റോക്ക് ഇല്ല സാർ വേറെ ഏത് ടൈപ്പ് ഫോണ് ആണ് വേണ്ടത് സാംസംഗ് ഇപ്പോൾ നമുക്ക് പല വൈഡ് റേഞ്ചിലുള്ള ഫോണുകള് വരുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് അത് അല്ലാതെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുണ്ട് എൽ ഒരു ലക്ഷം രൂപ വരുന്നതൊക്കെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ആണ് വേണ്ടത് ഉദാഹരണം നമ്മൾ ഇപ്പോൾ ഒരു ബൾക്കിൽ എടുക്കാനാണോ സാറിൻ്റെ തീരുമാനം ഇപ്പം പതിനഞ്ച് ഫോണാ അപ്പോൾ സാർ ഇപ്പോൾ ഏത് പ്രൈസ് റേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത് അതിനെ പറ്റി ഞാൻ ഇപ്പം ആ ആ സാറേ അത് സാംസംഗിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ സാംസംഗ് എം സിരീസിൽ കുറച്ച് ഫോൺ വരുന്നുണ്ട് പിന്നെ സാംസംഗ് എ സിരീസിൽ എ ഫോർട്ടി എ ഫിഫ്റ്റി വരുന്നുണ്ട് സാംസംഗ് ആ ഒരു റേഞ്ചിൽ ഈ മൂന്ന് ടൈപ്പ് ഫോണുകൾ വരുന്നുണ്ട് പിന്നെ സാംസംഗ് എസ് ഫിഫ്റ്റീൻ എന്ന രീതി എന്ന ഒരു ഫോണും ഈ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് പ്രൊസസ്സറ് പറയാൻ ആണെങ്കിൽ പ്രൈസ് കുറവായതുകൊണ്ട് തന്നെ അധികം വലിയ പ്രൊസസ്സറ് ഉള്ള പ്രൊസസ്സറുകൾ ഇതിന് ലഭിക്കുന്നതല്ല ഇനി ഇപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എ ഫോർട്ടീന് ആണെങ്കിൽ ഇഫ്റ്റിനോസാണ് എ ഫിഫ്റ്റീൻ ആണെങ്കിൽ മീഡിയടെക് എച്ചിനോസും ഉള്ള വേരിയൻറ്റുണ്ട് പിന്നെ എ ഫിഫ്റ്റീനും മീഡിയടെക്ക് ആണ് വരുന്നത് സ്നാപ്പ്ഡ്രാഗൺ ഈ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടത്തില്ല മൂന്നുനാല് ദിവസത്തേക്ക് ഫോണോ ചേട്ടാ ഇത് ഒരു ലൈഫ്ലോംഗ് കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്നല്ലേ ലൈഫ്ലോംഗ് കുട്ടികൾക്ക് ഇത് സ്വന്തം ആയിട്ട് കുട്ടികൾ കൊടുക്കുന്നതല്ലേ ആ അപ്പോൾ ചേട്ടാ അപ്പോൾ കുറച്ച് കൂടി ഉപയോഗം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു മീഡിയടെക്കിൻ്റെ എ ഫിഫ്റ്റീൻ ഫോണ് എടുക്കാം സാംസംഗിൻ്റെ അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ഏതെങ്കിലും എസ് ബി ഈ ബജാജിൻ്റെയോ കാനറ ബാങ്കിൻ്റെ എന്തെങ്കിലും കാർഡ് ഉണ്ടോ ആ അപ്പോൾ ഫോൺ അല്ലെങ്കിൽ നമുക്കത് തന്നെ എടുക്കാം നമുക്കൊരു പതിനെട്ടിൻ്റെ ആ റേഞ്ചിൽ നമുക്ക് ഇപ്പോൾ ഫോണ് എടുക്കാം ചേട്ടൻ ആയതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഒരു ചാരിറ്റി എന്ന രീതിയിൽ ആയതുകൊണ്ട് നമ്മൾ ഒരു പതിനഞ്ചിന് ചേട്ടന് ഫോൺ തരാം

ചേട്ടനിപ്പോൾ വന്നാൽ നമുക്ക് ഇപ്പം തന്നെ സ്റ്റോക്ക് ഉണ്ട് പതിനഞ്ച് ഫോണ് അല്ലേ നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ വന്നാൽ നമുക്ക് തരാം ആ ഓക്കെ ചേട്ടാ ഞാൻ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാ ചേട്ടൻ വന്നാൽമതി ഓക്കെ താങ്ക് യു